അതെ ഇത് മൈ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് പറയൂ എന്താണ് ഓർഡർ താങ്കൾക്ക് വേണ്ടത് ഓക്കെ ഓക്കെ ഇത് എപ്പോഴത്തേക്കാണ് വേണ്ടത് ഓക്കെ ഇത് എപ്പോഴത്തേക്കാണ് വേണ്ടത് മാം ഓക്കെ അഡ്രെസ്സ് ഒന്ന് പറയുമോ ആ ഫാസ്റ്റ് ഡെലിവറി പോസിബിൾ ആണ് അഡ്രസ് ഒന്നു പറയുമോ ഓക്കെ ഓക്കെ മാം ഇപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഇപ്പോൾ രണ്ട് ഫുഡ് എടുത്താൽ ഒരെണ്ണം എക്സ്ട്രാ ഫ്രീ ആണ് രണ്ട് കോമ്പൊയുണ്ട് രണ്ടു ബർഗർ എടുത്താൽ ഒരു ബർഗർ ഫ്രീ ആണ് അപ്പോൾ ആ ഓഫർ വച്ചിട്ട് എന്തെങ്കിലും എടുക്കാൻ താൽപ്പര്യം ഉണ്ടോ അതുപോലെ തന്നെ ജ്യൂസുകളും പുതിയത് വന്നിട്ടുണ്ട് ജ്യൂസുകൾ ജ്യൂസൊക്കെ ജ്യൂസ് ആപ്പിൾ ഓറഞ്ച് എല്ലാ ഫ്രഷ് ജ്യൂസുകളുമുണ്ട് പിന്നെ മോജിറ്റോ പോലെയുള്ള സ്പെഷ്യൽ മോജിറ്റോസുണ്ട് പിന്നെ കോക്ക്ടെയിൽ മോക്ക്ടെയിൽ മോക്ക്ടെയിൽസ് ഉണ്ട് അങ്ങനത്തെ സോഡാ ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് ആ പിസയുണ്ട് പിസ്സ രണ്ട് പിസ വാങ്ങിയാൽ ഒരു പിസ്സ എക്സ്ട്രാ കിട്ടും ഓക്കെ ബിരിയാണിക്കും ഉണ്ട് ബിരിയാണി അതെ രണ്ട് ബിരിയാണി വാങ്ങിയാൽ ഒരു ബിരിയാണി എക്സ്ട്രാ കിട്ടും ആ ഓക്കെ ഓക്കെ ആ എക്സ്ട്രാ ഒരു മൂന്നെണ്ണം കിട്ടുന്നുണ്ടാകും അത് ഏതൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടത് പറയൂ ഗ്രീൻ ആപ്പിൾ ഉണ്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ട് ലെമൺ ഉണ്ട് പിന്നെ സ്ട്രോബെറി ഉണ്ട് പിന്നെ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഗുവാവേടെയുണ്ട് ആ പിന്നെ പുതിയ ഒരു മാഗൊയും ഉണ്ട് കേട്ടോ

ഓക്കെ കൂളായിട്ട് തന്നെ എത്തിക്കുകയും ചെയ്യും കേട്ടോ ഞങ്ങൾ പിന്നെ ചെറിയ ഒരു ഡെലിവറി ഫീ ഉണ്ടാകും ഒരു ചെറിയ ഒരു പെർസെൻ്റെജെ ഉണ്ടാവുകയുള്ളൂ അത് ഓർഡറ് കൊടുക്കുമ്പോൾ ഒരുമിച്ച് അടയ്ക്കണം ആ അടച്ചതിന് ശേഷമാണ് നമ്മൾ എത്തിക്കുക ഓൺലൈനും ബുക്ക് ചെയ്യാം രണ്ടും ചെയ്യാം ഇതിലേക്ക് മതി ഇതിലേക്ക് മതി ഓക്കെ നാലുമണിക്ക് കറക്റ്റ് നാലുമണിക്ക് എത്തും ഓക്കെ ഓക്കെ താങ്ക് യു